അതെ പറഞ്ഞോളൂ അ ബ്രേക്ഫാസ്റ്റ് രാവിലെ ഇഡ്ഡലി ദോശ ഇടിയപ്പം വെള്ള അപ്പം പുട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അതെ ഉപ്പുമാവ് എല്ലാം ഉണ്ട് ഉപ്പുമാവ് പിന്നെ അങ്ങനെ ബൾക്ക് ആയിട്ട് ചെയ്യാറില്ല ചെറുതായിട്ട് അങ്ങനെ ഉപ്പുമാവിനൊക്കെ കുറവാണ് അതുകൊണ്ട് അതെ അതെല്ലാം ചെയ്യുന്നുണ്ട് അതെ മസാല ദോശയും ചെയ്യുന്നുണ്ട് മസാല ദോശ മസാല ദോശ അരിയും ഉഴുന്നും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് തലേദിവസം അരച്ചുവെക്കും പിറ്റേന്ന് ചുടും പിന്നെ ഉരുളകിഴങ്ങ് ഒക്കെ വെച്ചിട്ടുള്ള മസാല ആണ് ചട്നിയും സാമ്പാറും സൈഡ് കൊടുക്കുന്നുണ്ട് ചെറുകടികൾ പഴംപൊരി നെയ്യ്പത്തല് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് രാവിലെ ചെറുകടികള് കുറവാണ് റേറ്റ് ഒരു കടിക്ക് പത്ത് രൂപ അങ്ങനെ ആണ് ഞങ്ങൾ കൊടുക്കാറ്

മസാല ദോശക്ക് പതിനേഴ് രൂപയാണ് ഒരു മസാല ദോശക്ക് വരുന്നത് വെള്ള അപ്പത്തിന് പത്ത് രൂപ ആ ഒരു റേഞ്ചില് ഞങ്ങൾ വാങ്ങാറുള്ളൂ ബൾക്ക് ആയിട്ടൊക്കെ വാങ്ങുമ്പം കുറച്ചും കൂടി ഒരു എട്ട് രൂപ ഒമ്പത് രൂപ കണക്കിലൊക്കെ ഒരെണ്ണത്തിന് കൊടുക്കും അതെ എത്ര എണ്ണം വേണ്ടിവരും വെജ് ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ ഉരുളകിഴങ്ങ് മസാല ഉണ്ട് പിന്നെ നോൺ വെജ് ചിക്കൻ ഒക്കെ ചെയ്യുന്നുണ്ട് രാവിലെ അതെ പൂരി മസാല ഉണ്ട് പൂരി മസാലയും കറിയും കൂടി ഒരു സെറ്റിന് മുപ്പത് രൂപയാണ് വരുന്നത് ഒരു സെറ്റില് മൂന്ന് പൂരി മസാല കറിയും ഉണ്ടാവും

ചിക്കൻ കറി ഒരു കറിക്ക് നാൽപത് രൂപ ഒരു രണ്ട് പീസും കുറച്ച് ഗ്രേവിയും ഉണ്ടാവും